ഇന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആയിക്കോട്ടേ ഹോട്ടൽ ബുക്കിങ് ആയിക്കോട്ടേ ബസ്സ് ബുക്കിങ് ആയിക്കോട്ടേ എന്തരയാലും തന്നെ നമ്മൾ ഓൺലൈൻ ബുക്കിങ് പ്ലാറ്റ്ഫോമുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന ഇടത്ത് ഇരുന്ന് തന്നെ നമുക്കാവശ്യമുള്ള സമയത്തിപ്പം ഒരഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം നാളത്തേക്കാണെങ്കിലും നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ്സ് സ്റ്റാൻഡിലോ നേരിട്ട് പോവാതെ നമുക്കിരുന്നയിടത്ത് നമ്മുടെ ഫോണ് ഉപയോഗിച്ച് സാങ്കേതിക വിദ്യകൾ അതായത് ഇപ്പം ബസ്സ് ബുക്കിങ്ങിനാണെങ്കിലും ട്രെയിൻ ബുക്കിങ്ങിനും അതത് ആപ്പുകളുണ്ട് അപ്പം ആപ്പുകളുപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബുക്ക് ചെയ്യുമ്പോഴത്തേയ്ക്ക് നമുക്കുണ്ടാവുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയവും എഫേർട്ടും എടുത്ത് ഇവിടെ നിന്ന് ബസ്സ് സ്റ്റോപ്പിലോട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടോ പോകണമെന്നില്ല അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നില്ല പക്ഷെ ഒത്തിരിപ്പേര് ആ ബസ്സ് സ്റ്റോപ്പിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽനിന്നോ ദൂരത്ത് താമസിക്കുന്നവരുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബസ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്കിനി ഒരാളെ നോക്കിനിൽക്കേണ്ടിയൊക്കെ വരും അപ്പം ആ സമയത്ത് ഈ ഫോണ് വഴിയുള്ള ആപ്പുകളുപയോഗിച്ച് സാങ്കേതിക വിദ്യകളുപയോഗിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കുകയെന്നുള്ളത് വളരെ വലിയ പ്രയോജനകരമായൊരു കാര്യമാണ് ഇതല്ലാതെ തന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങായാലും ഇപ്പം എവിടെയെങ്കിലും നമ്മൾ താമസിക്കാൻ പോകുന്നു അറിയാത്ത സ്ഥലത്ത് നമുക്ക് സ്റ്റേയും കാര്യങ്ങളും വേണം നമുക്ക് നമ്മളിപ്പം ഒരു എക്സാമിനു പോവുകയാണ് അപ്പം എക്സാം സെൻ്ററിൻ്റയടുത്ത് നമുക്കൊരു ബുക്കിങ് ഹോട്ടൽ ബുക്കിങ് വേണം ഹോട്ടൽ വേണം താമസിക്കാനൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്കാ ലൊക്കേഷനാണ് നമുക്ക് എവിടെയാണ് എക്സാം നടക്കുന്നത് ആ ലൊക്കേഷൻ അടിച്ച് കൊടുത്ത് നിയർബൈ അതിന്റെയടുത്തുള്ള ഏതെങ്കിലുമൊരു സ്റ്റേ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഹോട്ടൽസോ അന്വേഷിച്ച് അവിടെ നമുക്ക് ഇവിടെ നമ്മളീ ഇരിക്കുന്നിന്നെടത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അതുമല്ലാതെ നമ്മൾ ഇപ്പം ഈയൊരു സാങ്കേതികവിദ്യ വരുന്നതിന് മുമ്പേ നമ്മൾ പോകുന്നിടത്ത് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഹോട്ടൽ ഹോട്ടൽസ് തേടി കണ്ടുപിടിച്ച് പിന്നതിനകത്ത് പോയാണ് നമ്മൾ ബുക്ക് ചെയ്ത് അത് സൗകര്യം ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് നേരത്തെ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാനും കഴിയില്ല ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനത്തെ സാങ്കേതിക വിദ്യകളുപയോഗിക്കുമ്പോൾ നമുക്ക് എത്ര പേർക്കുള്ള മുറിയാണ് വേണ്ടത് എത്ര ബാത്ത്റൂംസുണ്ടായിരിക്കണം അതിനെന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിരിക്കണമെന്നൊക്കെ നോക്കി നമുക്കീ ഇവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താൽ നമ്മൾ പോകുന്ന സമയത്ത് നമക്കത് ആ റൂമിലോട്ട് ചെല്ലാനും ഫ്രഷപ്പ് ആവാനും ഒക്കെ എളുപ്പമായിരിക്കും അതുപോലെത്തന്നെ നമ്മളിപ്പം ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോം നമ്പറ് അറിയാനും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെന്നാൽ തന്നെ നമ്മുടെ ഒരു കമ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന കമ്പാർട്ട്മെൻ്റ് എവിടെയായിരിക്കും വന്ന് നിൽക്കുക അതെവിടെയായിരിക്കും വന്ന് പ്ലേസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സീറ്റ്സ് എവിടെയായിരിക്കും വന്ന് നിൽക്കുന്നതെന്ന് അറിയുന്നത് കുറച്ച് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് നേരത്തെ കൂട്ടി അവിടെപ്പോയി നിൽക്കാനും കറക്ട് സമയത്ത് ട്രെയിനിനകത്ത് കയറാനും വളരെയധികം ഉപയോഗപ്പെടും അപ്പം ഈ ഇപ്പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലമൊരിടത്തും അല്ലെങ്കിൽ ട്രെയിനൊരിടത്തും നമ്മളൊരിടത്തുമായിരിക്കും അപ്പം നമ്മൾ ബുക്ക് ചെയ്തൊരു സ്ഥലത്തിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഓടിക്കയറേണ്ടി വരും അങ്ങനെയാവുന്നൊരു സമയത്ത് പലപ്പോഴും ട്രെയിൻ മിസ്സായി പോവാറുണ്ട് കാലുതെറ്റി വീഴാറുണ്ട് അപകടസാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതുപോലുള്ള ഓൺലൈൻ ആപ്പുകൾ നമുക്ക് തരുന്ന സഹായമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നതിന് മുൻപ് തന്നെ പ്ലാറ്റ്ഫോം നമ്പറ് അറിയുവാനും ഓടിപ്പിടച്ച് വരാതിരിക്കാനും പ്ലാറ്റ്ഫോം നമ്പററിഞ്ഞ് അവിടെ വന്ന് നിൽക്കുവാനും നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റ് നമ്പേഴ്സിന് അനുസരിച്ചുള്ള സ്ഥലത്ത് വന്ന് കറക്ടായിട്ട് നിന്ന് ട്രെയിൻ വരുന്ന സമയത്ത് ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് കയറി പറ്റുവാനും സാധിക്കും കുറച്ച് പരിമിതികളുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് അതല്ലാതെ തന്നെ ഇപ്പം ബസ്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ബസ്സുകൾ ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ്സ് കിട്ടാറില്ല അപ്പം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേയ്ക്കും ചിലപ്പം നമുക്ക് പൈസകൾ കുറഞ്ഞ് കിട്ടും അതുമല്ലാതെ നമുക്കത് നേരത്തെ ഒരു ഒരു വെപ്രാളമില്ലാതെ ഒരു സമാധാനപരമായിട്ട് നമുക്കൊരു യാത്ര നടത്താനും സാധിക്കും നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ ഡയറക്ട് പോയൊരു ടിക്കറ്റ് എടുക്കുമ്പോഴത്തേയ്ക്കും ആദ്യം പോകുന്ന ആൾക്കാർക്ക് പ്രിഫറൻസ് കിട്ടുക ചിലപ്പം നമ്മൾ ഇരിക്കുന്ന അടുത്തുനിന്ന് പോകാനിത്തിരി ദൂരമുള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പം സമയത്തിന് പോയെത്തണമെന്നില്ല അപ്പം ഓൾറഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെപ്രാളം ഇല്ലാതെ പോയി എടുക്കേണ്ട ആവശ്യം നമുക്ക് പലപ്പോഴും വരുന്നില്ല മുമ്പൊക്കെ നമുക്ക് ഒരു ട്രെയ്നിൽ നമ്മൾ യാത്ര ചെയ്യുന്നു ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടായിരിക്കും നമ്മൾ ടിക്കറ്റെടുക്കുക അപ്പം നമ്മളതിനും കൂടി സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് അതിൽ തന്നെ ഒത്തിരി ലൈനുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ്സ് കിട്ടാൻ പാടായിരിക്കും ടിക്കറ്റെടുത്തതിന് ശേഷം പിന്നെ പ്ലാറ്റ്ഫോം അന്വേഷിച്ച് അവിടെക്കേറി അവിടെ നടന്ന് പിന്നെ എവിടാ നമ്മുടെ സീറ്റ് വരും എന്നൊക്കെ നോക്കി ജനറൽ കമ്പാർട്ട്മെൻ്റ് എവിടെ വരും എന്നൊക്കെ നോക്കി ഒത്തിരി അലഞ്ഞ് തിരിഞ്ഞാണ് നമ്മൾ പല പണ്ടത്തെ കാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് പക്ഷെ ഈ ഓൺലൈൻ ആപ്പുകളുടെ വരവിന് ശേഷം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെയാണോ നമ്മളായിരിക്കുന്നത് അവിടെ നിന്നു കൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാനും പേയ്മെൻ്റ് നടത്തുവാനും നമ്മുടെ സീറ്റ്സ് ഉറപ്പ് വരുത്താനും പിന്നെ നമ്മൾക്ക് പ്ലാറ്റ്ഫോം നമ്പറ് അറിയുവാനും ആ ആപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ അറിയുവാനും നമ്മുടെ സീറ്റിൻ്റെ അറേയ്ഞ്ച്മെൻ്റ് എവിടെയാണെന്ന് അറിയുവാനും ആ കറക്ട് സമയത്ത് തന്നെ നിന്ന് കയറുവാനും അത് അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനെവിടെയെത്തി നമുക്ക് ഷോട്ടസ്റ്റ് സമയമുണ്ട് ട്രെയിനെവിടെയെത്തി എത്ര മണിക്കുള്ളിൽ വരും എന്താണ് ആൻഡ് ട്രെയിൻ സ്റ്റാറ്റസ് വരെ നമുക്ക് ഇന്ന് ഒരു ആപ്പിൽ ട്രയിനിൻ്റേയും ബസ്സിൻ്റേയും സ്റ്റാറ്റസ് വരെ നമുക്കിന്ന് ഒരു ആപ്പിൽ കാണാൻ പറ്റും എവിടെയെത്തി എത്ര മിനുറ്റിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന ഇടത്ത് വരും എത്ര മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് വണ്ടി എടുക്കും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കിന്ന് ആ അപ്പ് വഴി അറിയാൻ സാധിക്കുന്നുണ്ട്